എൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുകളാണ് കാരണം ഏതൊരു കാര്യത്തിനും എൻ്റെ ഒപ്പം ഉണ്ടായിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കളാണ് അവരിലാണ്ട് എനിക്കൊര് കാര്യം ചെയ്യുക എന്നത് അസാധ്യമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും അവരുടെ സപ്പോർട്ടും കൂടെ കൂടി ചെയ്യുമ്പോൾ അതിന് ഏറെ ഭംഗിയാക്കാൻ എനിക്ക് സാധിക്കാറുണ്ട് എൻ്റെ ബലഹീനത എന്ന് പറയുന്നതും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് കാരണം സുഹൃത്തുക്കൾ നഷ്ട്ടപ്പെടുമ്പോൾ എൻ്റെ ഈ സുഹൃത്തുക്കൾ ഒരിക്കൽ ഒരു ദിവസം എന്നിൽ നിന്ന് വിട്ടകന്നു പോയാൽ ഏറെ അധികം ഞാൻ തളർന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്